നെയ്ത്ത് എന്നത് തുണിത്തരങ്ങൾ നിർമ്മിക്കുന്നതിനുള്ളൊരു രീതിയാണ് നൂലുകൾ കൊണ്ട് നിർമ്മിക്കുന്നത് ഞാൻ പരമ്പരാഗതമായിട്ട് വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ശ്രമിച്ചിട്ടൊന്നുമില്ല ആ ആദ്യം ഞാൻ കണ്ടിട്ടുള്ള തൃശ്ശൂർ കുത്തമ്പളിയിൽ കൈത്തറിയിൽ ഇങ്ങനെ ചെയ്യുന്ന സെറ്റ് സാരികളാണ് കണ്ടിട്ടുള്ളത് അല്ലാതെ കൂടുതലായിട്ടുള്ള അറിവുകൾ എനിക്കില്ല എന്നാലും മനുഷ്യൻ്റെ ഏറ്റവും പഴക്കമേറിയ ഒരു സാങ്കേതിക വിദ്യകളിൽ ഒന്നാണ് ഈ തുണി നിർമ്മിക്കുന്നത് തുണിത്തരങ്ങൾ നിർമ്മിക്കുന്നത് ആദ്യം വേണ്ടത് നാരുകളുടെ ഒരു ഉറവിടമാണ് അതിന് നൂല് അതിൽ നിന്ന് നൂൽ ഉണ്ടാക്കണം പ്രാഥമിക പ്രാഥമികമായി നൂല് നൂൽക്കുക വഴി നൂൽ നെയ്ത്ത് അല്ലെങ്കിൽ നെയ്ത്ത വഴിയാണ് ഉണ്ടാക്കുന്നത് നിറവും പാറ്റേണുകളും ഉപയോഗിച്ച് അത് തുണിയാക്കി മാറ്റിയെടുക്കുന്നു നെയ്ത്തിന് ഉപയോഗിക്കുന്ന യന്ത്രം തറി എന്നാണ് അലങ്കാരത്തിനായി നൂൽ അല്ലെങ്കിൽ പ പൂർത്തിയായ മെറ്റീരിയൽ നിറം നൽകുന്ന പ്രക്രിയയാണ് ഡയ്യിങ്ങ് കമ്പിളി കമ്പളി വസ്ത്രങ്ങൾ അത് കേട്ടിട്ടുണ്ട് കമ്പിളി എന്ന് പറയുന്നത് മറ്റേ മൃഗങ്ങളുടെ നാരുകളിൽ നിന്ന് ഉണ്ടാക്കി എടുക്കുന്ന വസ്ത്രങ്ങളെയാണ് ക വസ്ത്രങ്ങളുണ്ട് കമ്പിളി പുതപ്പ് സെക്റ്ററുകൾ അങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെ നിർമ്മിക്കുന്നത് ഈ മൃഗങ്ങളുടെ നാരുകളിൽ കൊണ്ടാണെന്ന് ചെമ്മരിയാട് അങ്കോറ മൊയിൽ അങ്കോറ ആട് ഇവയെല്ലാം എന്നൊക്കെയാണ് അയിന്റെ മെറ്റീരിയല് കളക്റ്റ ചെയ്യുന്നത് നെയ്ത്ത് പണ്ടൊക്കെ എല്ലാവരും സൂചി സൂചി കൊണ്ടാണ് നൂല് കൊണ്ട് നെയ്ത്ത നെയ്താണ് വസ്ത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നത് ഇന്നൊക്കെ അതിന് സാങ്കേതികമായ ഒരുപാട് വിദ്യകളും മിഷ്യനുകളും യന്ത്രങ്ങളും ഒക്കെ വന്ന് കഴിഞ്ഞു ഇപ്പം അപൂർവ്വമായിട്ട് നെയ്ത്ത് വസ്ത്രങ്ങൾ കാണാറുള്ളൂ ഞാൻ ആദ്യമായിട്ട് കണ്ടെന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൽ നിന്ന് കുത്തമ്പള്ളിയിൽ കൈത്തറി വസ്ത്രങ്ങൾ നിർമ്മിക്കുന്ന അവിടെയാണ് കണ്ടത് കൈത്തറി ഞങ്ങൾ സെറ്റ് മുണ്ട് നോക്കാൻ വേണ്ടി പോയപ്പോൾ കൈത്തറി ഇങ്ങനെ വസ്ത്രങ്ങൾ നൂലിങ്ങനെ വിവി ചെയ്ത് സ്ത്രീകളിങ്ങനെ ഇരുന്ന് വിവി ചെയ്ത് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെ കണ്ടൊരു ഓർമ്മ മാത്രമേ എനിക്ക് ഉള്ളൂ അല്ലാതെ വസ്ത്രങ്ങൾ വിവി ചെയ്യുന്നതിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള പഠനങ്ങളൊന്നും അറിയത്തില്ല എന്നാലും വസ്ത്രങ്ങൾ ഇങ്ങനെ നൂലിൻ്റെ എഴകൾ കൊണ്ട് കൂട്ടി ചേർത്ത് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നത് അത് ഏറ്റവും നമ്മൾ മിഷീനിൽ ഉണ്ടാക്കുന്നതിനെക്കാൾ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള ഒന്നാണ് അതാണ് നൂല് തുന്നിയെടുക്കുന്നത് കാണാൻ തന്നെ അവരാണ് കസവൊക്കെ ഇങ്ങനെ ഗോൾഡൻ കളർ ആക്കി ഇങ്ങനെ വീവി ചെയ്തെടുക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് അങ്ങനെ നൂലുകളെ കൂട്ടിച്ചേർത്ത് അതിന് എഴകൾ കൊണ്ട് ചെയ്തെടുക്കുന്ന വസ്ത്രങ്ങൾ ഏറ്റവും ഭംഗിയുള്ള വസ്ത്രങ്ങളാണ് അത് കാണാനാണ് ഏറ്റവും കൂടുതൽ ഭംഗി പക്ഷേ ഇന്ന് കൂടുതലും ആൾക്കാർ ഉപയോഗിക്കുന്നത് മെഷീന് വഴി കോട്ടണ് സില്ക്കണ് അങ്ങനെയുള്ള ഓരോ വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് അതിലാരൊക്കെ ഉപയോഗിക്കാനും ഏറ്റവും നല്ല വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കൈത്തറി അതായത് നെയ്ത് ഉണ്ടാക്കുന്ന വസ്ത്രങ്ങൾ തന്നെയാണ് നല്ലത്